ഹലോ ഒമേഗ ടൂർസ് ആൻഡ് ട്രാവൽസ് അല്ലേ ആ ഞാൻ മുംബൈയിൽ നിന്നാണു വിളിക്കുന്നത് രഞ്ജന ആ രഞ്ജന ആ ഞാൻ മുംബെയിൽ ആണ് ഇപ്പോൾ താമസിക്കുന്നത് ആ അപ്പോൾ എനിക്ക് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതായത് കേരള ആർട്സ് ആൻഡ് ആർട്സിനെക്കുറിച്ചുള്ള ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആർട്സിനെ പറ്റി ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടൂറ് ചെയ്യണമെന്നുണ്ട് കേരള മുഴുവനായിട്ട് ആ അപ്പോൾ നിങ്ങൾ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും പാക്കേജസ്

ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓ എല്ലാം അവൈലബിളാണ്

ഓ രണ്ടാഴ്ച എടുക്കും ഇത്

ആ അതെ ആ ഈ

ആ ആ ആ

ആ അത് ശരി ആ

അതെ ആ

ഓ ശരി ശരി

ആ അപ്പോൾ ഈ കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് എത്ര ദിവസം ഉണ്ടാവും തെയ്യം ആ വന്നോ സാർ ആ ഈ

ആ ആ

ആ ശരി ഈ ഈ യക്ഷഗാനം ഒക്കെ കാണാൻ പറ്റുമോ

ആ ആ അതെ അതെ ആ ശരി ഈ ഇതിന് എത്രയാ പാക്കേജിന് എത്രയാ പ്രൈസ് വരുന്നത് ആ അതെയാ

ഓ അതെയാ

ഓ ആ ആ ആ അത് ശരി ആ ഇപ്പോൾ ഈ ആ ഇപ്പോൾ ഈ രജിസ്റ്ററ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്

ആ അത് ശരി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ്

ആ ഓക്കെ ശരി അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് അയക്കാം ഓക്കെ